നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ കാലത്ത് എല്ലാരും സാങ്കേതിക വി മീൻസ് സാങ്കേതികമായിട്ട് ആണ് ജീവിക്കുന്നത് പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും എന്ന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുക ആണെങ്കിൽ പണ്ടത്തെ കാലത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ അന്നത്തെ കാലത്ത് ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ ഒന്നും അത്ര വളർന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് വിളിക്കാൻ വല്ല ലാൻഡ് ഫോണോ അതും ചിലപ്പോ മൂന്നാല് വീടുകൾക്കായിട്ട് ഒരു ലാൻഡ് ഫോണേ കാണത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നൊക്കെ കത്തെഴുത്തിലൂടെ ഒക്കെയാണ് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും അവർ സ്വന്തം അടുത്തുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയും ആളുകൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഈ സാങ്കേതികവിദ്യ വളർന്നതിലൂടെ ഒത്തിരി ഏറെ നമുക്ക് ഫലങ്ങൾ ഉണ്ടായി എങ്കിലും അത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റും മിക്ക ആൾക്കാരും അത് ആവശ്യം ഇല്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്കെന്ന് പറയുമ്പോൾത്തേക്കും അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം നമുക്കറിയാം അതിലൂടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ അത് തന്നെ ചെയ്യുന്നു ഇങ്ങനെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ശ ഒത്തിരി ഒത്തിരി ആരോഗ്യ പ്രശ്നനങ്ങൾ ഇന്നത്തെ ആൾക്കാർക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു കണ്ണിനും തലക്കും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ കൂടി അവർ ഒഴിവ് സമയങ്ങളിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിലാണ് സമയം ചിലവഴിക്കുന്നത് പുസ്തകം വായിക്കുകയോ പുറത്ത് പോയി കളിക്കുകയോ സൗഹൃദങ്ങൾ ഉറപ്പിക്കുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് മുതിർന്നവരും ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുമ്പോൾ യൂട്യുബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോകൾ കണ്ട് അത് എന്തും ആവട്ടെ എന്ത് കാര്യവും ആവട്ടെ പക്ഷെ വീഡിയോകളൊക്കെ കണ്ട് സിനിമകളൊക്കെ കണ്ട് സീരിയലുകൾ കണ്ട് ഇങ്ങനെയൊക്കെ സമയം ചിലവഴിക്കുന്നു